ഹലോ ആ ഹലോ ഞാൻ ടെസ്സിയാണേ എനിക്ക് കുറച്ച് ബിരിയാണി അരി വേണമായിരുന്നു ഒരഞ്ച് കിലോ ബിരിയാണി അരിയും അതിനടുത്ത് അതിൻ്റെ അതിനകത്തിടാനുള്ള അരി ഇൻഗ്രിഡിയൻസ് എല്ലാം അതിനനുസരിച്ചുള്ളത് അഞ്ച് കിലോ അരി വെയ്ക്കാൻ കിറ്റ് ഒരു ബർത്ത്ഡേ പാർട്ടിയുണ്ടേ ആ പിന്നെ ഇത് നട്ട്സും കിസ്മസും ഒക്കെ ഏറ്റവും പുതിയത് വന്നിട്ടുണ്ടല്ലോ അല്ലേ ആ ഒരു കിലോയുടെയൊരു നെയ്യും വേണേ പിന്നെ ആ മസാലക്കൂട്ടും എല്ലാം അര കിലോയുടെ ഓരോ പായ്ക്കറ്റ് കൊടുത്ത് വിട്ടേരേ പിന്നേ തൈരും തൈരൊക്കെ ഇരിപ്പുണ്ടോ ആ തൈരും ഒരു അഞ്ച് പായ്ക്കറ്റ് പപ്പടവും അതുകൂടെ മറക്കാതെ കൊടുത്ത് വിടണേ എണ്ണ അല്ല നെയ്യുണ്ടല്ലോ ആ നെയ്യുടെ ഒരു കിലോയുടെയൊരു പായ്ക്കറ്റ് പിന്നെ എന്നാൽ അവിടെ നിൽക്കുന്ന കൊച്ചിനെ കൊണ്ടാ വണ്ടിയിലൊന്നേ എല്ലാം ഒന്നു അതൊന്ന് ആ എടുത്ത് വെപ്പിച്ച് കൊടുത്ത് വിടണേ പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കുറേ പച്ചക്കറിയൊക്കെ വാങ്ങിച്ചായിരുന്നല്ലോ അതിനകത്ത് കുറേ ഒക്കെ മഴക്കാലം ആയതുകൊണ്ടായിരിക്കാം കുറച്ച് ചീഞ്ഞതൊക്കെ ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ കുഴപ്പമില്ല അ ആ ആ ആ പിന്നെ എന്നാൽ ഇത്ര ഒക്കെ മതി ഏഹ് കേട്ടോ എല്ലാം ഒന്നു ആ കേക്ക് വേണം സോറി കേക്ക് വേണം ഒരു മൂന്ന് പരുപാടി ഇരുപത്തെട്ടാംതീയ്യതിയാണേ ആ ഇരുപത്തഞ്ച് പേർക്കുള്ളതാ കേക്ക് മൂന്ന് കിലോയുടെ കേക്ക് വേണം വേണേ വാനില വാനില ആ ആ എന്നാൽ ശരി ആ ഓക്കെ ആ പൈസ പിന്നെ പിന്നെ ഗൂഗിൾ പേ ചെയ്തോളാം കേട്ടോ ആ ഗൂഗിൾ പേ ആ ഗൂഗിൾ പേ ചെയ്തോളാം

അരി ബസുമതി റൈസാണ് വേണ്ടത് കേട്ടോ കോഹിനൂറിൻ്റെ ബസുമതി റൈസുണ്ടേ അത് കൊടുത്ത് വിടണേ കോഹിനൂറിൻ്റെ ബസുമതി റൈസുണ്ടല്ലോ അത് കൊടുത്ത് വിടണേ പിന്നെ സബോള സബോള ഒരു പത്ത് കിലോ ഇരുന്നോട്ടെ ആ ചെറിയ ഉള്ളിയുണ്ടേൽ ഒരു മൂന്ന് കിലോ അതുകൂടെ ഉം ആ ജ്യൂസൊരു അഞ്ച് ലിറ്ററിന്റെയൊരു പായ്ക്കറ്റ് കൊടുത്ത് വിട്ടേരേ ആ വേറേ എന്നാ വേറെ ഒന്നും വേണ്ട വേറെ ഒന്നും വേണ്ട ഓക്കെ ആ ശരി താങ്ക് യൂ കേട്ടോ ഓക്കെ ആ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ആ